ഞാനാണ് അതെ അതെ ആ ആ എന്തായിരുന്നു ആ അതിനെന്താ അതിനെന്താ ഏ അതിന് എന്ത് തിരക്ക് ദൂരത്തോ മ് ആ അതെ ആ അതിനെന്താ അതിനല്ലേ സ്റ്റുഡിയോ ഇവിടെ പ്രവർത്തിക്കുന്നത് പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ ഉണ്ട് തണുപ്പും ഹലോ അല്ല ഒന്ന് എളുപ്പത്തിൽ വരാൻ പറ്റുമോ എന്നാ ഞാൻ ചോദിച്ചത്

പാസ്പോർട്ട് സൈസ് ഒരു കോപ്പിക്ക് മുപ്പത് രൂപയാകും എവിടെ അത് വേറെ വല്ലവരുടെയും ഫോട്ടോ ആയിരിക്കും ഇത് പിന്നെ അയാളുടെ പുണ്യത്തിന് ഇരിക്കുന്നതാണോ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോക്ക് അതിന്റെതായ റേറ്റും കാര്യങ്ങളും ഒക്കെ ഇല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഉള്ള ആളായത് കൊണ്ട് നാട്ടുകാരനായത് കൊണ്ട് തൽക്കാലം ആ അത് നമുക്ക് കുറച്ചേക്കാം ഒരു അമ്പത് രൂപയ്ക്ക് എത്ര കോപ്പി ആയിരുന്നു വേണ്ടത് എത്ര കോപ്പി വേണം ഒരെണ്ണം മതിയോ ആ നാലു കോപ്പിക്ക് ഒരു അമ്പത് രൂപയ്ക്ക് ചെയ്തേക്കാം വേഗത്തിൽ എത്തണം വേഗത്തിൽ എത്തണം എനിക്ക് ഒരു ആവശ്യം പ്രമാണിച്ച് ഇവിടുന്ന് പോകേണ്ടതുണ്ട് അതുകൊണ്ട് അധികം താമസിക്കാതെ എത്തിച്ചേരുക ആ അത് വലിയ താമസം ഉള്ളതല്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കോപ്പി കയ്യിൽ കിട്ടും ആയിക്കോട്ടെ ഓക്കേ